അതുപോലെ തന്നെ കബഡി എന്നത് ഇന്ത്യയിൽ ഉൽഭവം കൊണ്ട ഒരു കായിക ഇനമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ മനസിലും കായിക പരിപാടികളിലും അതിന് പ്രത്യേക സ്ഥാനമുണ്ട് അതുപോലെ തന്നെ കളരിപയറ്റ് എന്നത് കേരളത്തിൽ പണ്ടുകാലം മുതലേ നിലനിന്നിരുന്ന ഒരു ഇനമാണ് കേരളത്തിൻറ്റെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഒരു കായിക ഇനമാണ് കളരിപ്പയറ്റ് കായിക ഇനങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നതും ശ്രദ്ധ നൽകുന്നതും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കായിക സംസകാരത്തെ എടുത്ത് കാട്ടുന്നത് മാത്രമല്ല കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനും അത് വരും തലമുറക്ക് പ്രചോദകമാകും അതിനും സഹായിക്കുന്നു അതുപോലെ അതുപോലെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കായിക ഇനങ്ങൾ അന്താരാഷ്ട്രതലത്തിൽ ശ്രദ്ധ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് തന്നാണ്